ഇപ്പോൾ വെറും സർഫ് എക്സ് എക്ഷന് വേണ്ടിട്ട് നമ്മള് തയ്യാറെടുക്കുന്നൂന്ന് പറഞ്ഞാൽ നമ്മള് മെയിനായിട്ട് നമുക്ക് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളുമൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെപ്പോഴും ജേഴ്സി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം പൂവാൻ വേണ്ടീട്ട് ഇപ്പം ഷർട്ടൊക്കെ ഇട്ടോണ്ട് പൊയി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് അതായത് നമ്മുടെ മേലൊക്കെ വെള്ളം നനഞ്ഞ് ഒട്ടാനൊള്ള സാധ്യതകളക്കെ കൂടുതലാണ് ഇപ്പം നമ്മള് കൂടുതലായിട്ടും ഷർട്ടൊക്കെ ഇടുമ്പോൾ ചിലപ്പം മുറിയാനുള്ള സാധ്യതകളക്കെ വരെയധികം കൂടുതലാണ് നമ്മള് ജേഴ്സി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമ്മള് ലൂസായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ട് വേണം പോകാൻ വേണ്ടീട്ട് ഇപ്പം ലേഡീസക്കെ ആണങ്കില് അവർക്ക് എങ്ങനെയാണോ കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സ് അത് ഇട്ടിട്ട് വേണം പോകാൻ അപ്പം ലൈഫ് ജാക്കറ്റ് നമ്മള് മെയിനായിട്ട് നമ്മള് യൂസ് ചെയ്യണ്ട ഒന്ന് തന്നെയാണ് ലൈഫ് ജാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്കെന്തെങ്കിലും അപകടം പറ്റും ഇപ്പോൾ വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ വീഴുവോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് നമുക്കത് ഭയങ്കര പ്രശ്നാണ് കാരണം നമ്മള് മരിക്കാനുള്ള ചാൻസ് വരെ കൂടുതലാണ് ചിലപ്പം നീന്താനെന്താ അറിയാത്തവരൊക്കെ ആണങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാവും നമ്മള് ലൈഫ് ജാക്കറ്റ് മെയിനായിട്ട് നമ്മള് യൂസ് ചെയ്യുന്ന ഒന്നാണ് പിന്നേ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് കറക്റ്റായിട്ട് നമ്മള് സർഫ് ചെയ്യുന്ന സമയത്ത് നമ്മള് നിക്കുക അങ്ങനത്തെ കാര്യങ്ങളക്കെ നമ്മള് മെയിനായിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച് കൂടി നല്ലതാണ് ഇങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് തയ്യാറെടുക്കേണ്ടത് കേട്ടോ